അതെ പറഞ്ഞോളൂ സർ നമുക്കിപ്പോൾ സീ ഫുഡ് അൽമോസ്റ്റ് എല്ലാ ഫിഷ് ഐറ്റംസും വരുന്നുണ്ട് സർ നമ്മൾക്ക് കോഴിക്കോട് വരുന്നുണ്ട് ആലപ്പുഴ വരുന്നുണ്ട് ആ ഓക്കേ ആയിക്കോട്ടെ സർ പറഞ്ഞോളൂ റേറ്റ് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റിപ്പോൾ ലോ ബഡ്ജറ്റിലുള്ള ഫിഷുകളുണ്ട് അത്യാവശ്യം ഹൈ ലെവലായിട്ടു വരുന്ന ഫുഡൊക്കെ ചെയ്തുതരാൻ പറ്റും സാറിൻ്റെ ബഡ്ജറ്റെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സ്റ്റെയും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ റിസോർട്ടും കാര്യങ്ങളുമൊക്കെയുണ്ട് കോഴിക്കോടും ഉണ്ട് ആലപ്പുഴയും വരുന്നുണ്ട് സർ ആലപ്പുഴ ആകുമ്പോൾ നമുക്ക് ഹൗസ് ബോട്ട് കാര്യങ്ങളുമൊക്കെ അറേഞ്ച് ചെയ്തു തരാൻ പറ്റും സീ ഫുഡ് അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഓൽമോസ്റ്റ് ബിരിയാണി ഐറ്റംസ് വരുന്നുണ്ട് മന്തി അൽഫാം ഷവർമ്മ അങ്ങനത്തെ ഓൽമോസ്റ്റ് എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഓ ഓക്കേ സർ നമുക്ക് നിങ്ങളുടെ ബജറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതനുസരിച്ചു ചെയ്യാൻ പറ്റും ആ ഓക്കേ എല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റും ഞാനിപ്പോൾ കോഴിക്കോട് ആണുള്ളത് ആ ഓക്കേ സാർ എന്നത്തേക്കാണ് ട്രിപ്പും കാര്യങ്ങളും ആ ഓക്കേ പതിനഞ്ചാം തിയതിയല്ലേ ഓക്കെ ആ ഓക്കെ എത്ര മെംബേർസ് ഉണ്ടാകുമപ്പോൾ ആറുപേരല്ലേ ഓക്കേ സ്റ്റേയും കാര്യങ്ങളും എങ്ങനെയാ ബഡ്ജറ്റ് മൊത്തത്തിൽ ആ എത്ര ദിവസമാണ് സാർ പ്ലാൻ ചെയ്തേക്കുന്നത് ടെൻ ഡേയ്സ് അല്ലെ ഓക്കെ ആ അപ്പോൾ സാറിനു വേണ്ടതുപോലെ നമ്മളത് ചെയ്തു തരാം ഓക്കേ സാർ എന്തായാലും എത്തുന്നതിനുമുമ്പ് എന്നെയൊന്നു കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റൈൽസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുതരാം ഏതൊക്കെ ഫിഷ് ഐറ്റംസ് ആണുള്ളത് അവൈലബിൾ ആയിട്ടുവരുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടു വാട്ട്സപ്പ് ചെയ്തുതരാം സാറിന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാല് ചൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി